ദേശീയ അന്തർ ദേശീയ തലത്തിൽ നടക്കാറുള്ള കുറേ കായിക മത്സരങ്ങൾ ടൂർണമെൻ്റുകളാണ് നമ്മുടെ എൻ്റെ എൻ്റെ സ്ഥലത്ത് നടത്താറുണ്ട് അപ്പം ഏറ്റവും ഫേമസായ സ്പോർട്സ് എന്ന് പറയുമ്പം അത് കായികമെന്നു പറയുമ്പം അത് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ഒക്കെ തന്നെയാണ് ഇപ്പം അല്ലാണ്ട് നടക്കുന്ന അത്ലറ്റ്സ് അത്ലെറ്റിക് മീറ്റെന്നു പറയുമ്പോൾ അത് ഓട്ടം ചാട്ടം അങ്ങനെ തുടങ്ങിയ അങ്ങനെ ഒരു ഇതിൽ പോകും പക്ഷേ എൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് എന്ന് പറയുന്നത് ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ആണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞതു പോലെ തന്നെ ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തിയപ്പം ലഭിച്ച പഞ്ചായത്തിൻ്റെ പിന്തുണ പോലെ തന്നെയാണ് ഞങ്ങളുടെ അവിടെ പള്ളി മുഖാന്തരം നടത്തുന്നത് അല്ലേൽ രൂപത മുഖാന്തരം നടത്തുന്നത് വോളിബോൾ ടൂർണമെൻറ്റുകൾ പിന്നെ വോളിബോൾ ടൂർണമെൻ്റുകൾ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഒക്കെ അതും വളരെയേറെ പ്രാധാന്യം നേടിയിട്ടുള്ളൊരു ഇതാണ് കായികമാണ് അപ്പോൾ ഏകദേശം റീസൻറ്റായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും റീസൻറ്റായിട്ട് നടന്ന വോളിബോൾ ടൂർണമെൻ്റ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെയാണ് മനസ്സിലോട്ട് ഓടിയെത്തുക അപ്പം ഇതിന് ഭയങ്കരയേറെ സപ്പോട്ട് പഞ്ചായത്തീന്നും നമ്മുടെ ഒരു സ്ഥലത്തിലെ ചെറുപ്പക്കാരും നൽകാറുണ്ട് അപ്പം ഈ എത്ര പ്രായത്തിലുള്ളവർ ഈ ജനങ്ങളിൽ എല്ലാം ഒരു പ്രായം ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സിൻ്റെ താഴോട്ടുള്ള എല്ലാ കുട്ടികളും ഈ യുവജനങ്ങളും എല്ലാ യുവജനങ്ങളാണെങ്കിലും പതിനെട്ട് വയസ്സിനു മേലോട്ടുള്ള യുവജനങ്ങളാണെങ്കിലും പതിനെട്ടു വയസ്സിന് താഴോട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഇന്ന കായിക ഇനങ്ങളിൽ അവർ വളരെ ഏറെ താൽപര്യമുള്ളവരാണ് പങ്കെടുക്കുന്നത് കാരണം അവർ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു സ്പോർട്സാണ് ഇതെല്ലാം അവരുടെ അവരുടെ മുതിർന്നവർ തൊട്ട് കളിച്ച് കാണുന്ന ഒരു സ്പോർട്സാണ് അപ്പം ഇത് അവർക്ക് കളിക്കാൻ അവർക്ക് വളരെ ഇൻട്രസ്റ്റാണ് അവർക്ക് ഇത് കളിക്കാൻ അപ്പം ഓരോ ടീമുകളിൽ കയറാൻ വേണ്ടി നമ്മൾ പ്രത്യേക സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഇവർക്കു വേണ്ടി കാരണം അതു പോലെ ആൾക്കാർ ഓടി എത്തുമ്പോൾ ഇപ്പം യുവജനങ്ങളിലാണെങ്കിൽ ഇവർക്ക് ജോലി തിരക്കോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ കളിയോടുള്ള ആത്മാർത്ഥ ബന്ധം കാരണം ഒരു ഹ്യൂജ് ആത്മാർത്ഥമായ ഒരു ബന്ധം കളികളോടുള്ള കാരണം ഇതിനോട് കളിക്കാൻ വരാൻ താൽപര്യമുള്ളവരുണ്ട് അവരുടെ പല തിരക്കുകളും മാറ്റി വെച്ചിട്ട് വരുവാ യുവജനങ്ങൾ കാരണം മറ്റ് ജോലികളും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കേണ്ട സാഹചര്യത്തിൽ ഇവർ അതൊക്കെ ഒരു സൈഡിൽ കൂടെ കൊണ്ടു പോയി മറ്റ് സൈഡിൽ കളിട് ഉള്ള അമിതമായ താൽപര്യം കാരണം ഇതൊക്കെ കളിക്കാറുണ്ട് ഇപ്പം ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് എന്നൊക്കെ പറയുമ്പം അതൊരു അതൊരു ലഹരിയായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ട് പോകുന്നവരുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് എല്ലാ പഞ്ചായത്തിലും ഇതു പോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്പോർട്സ് ക്ലബ് ഉണ്ടാകും അപ്പം ഇത് ഇത് വളരെ ഇത് എപ്പോഴും മുന്നോട്ട് എപ്പോഴാണെങ്കിലും ഇതെപ്പോഴും ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും